പ്ലാസ്റ്റിക്ക് കണ്ടെയ്നർ ഉപയോഗിച്ച് കഴിഞ്ഞ് കളയാനായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ളൊരു സാധനം ആണ് അത് പറമ്പിൽ കിടന്ന് കഴിഞ്ഞാല് കൃഷിക്കും ഒക്കെ നാശമായും ബാധിക്കുന്നു മണ്ണിനും ബാധിക്കുന്നുണ്ട് അതെടുത്ത് കളയാനായിട്ട് വളരെ കത്തിച്ച് കളഞ്ഞാൽ അതും പ്രയാസമാണ് അതിൻ്റെ അകത്തെ വിഷവാതങ്ങൾ പുറത്ത് വന്ന് ശ്വാസം മുട്ടലുകൾ ഒക്കെ ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് ഈ ടൈപ്പ് ഈ രീതിയിലുള്ള പ്ലാസ്റ്റിക്ക് ഇതിലുള്ള സാധനങ്ങൾ കണ്ടെയ്നറുകൾ ഇനിയും വാങ്ങിക്കാതിരിക്കാനായിട്ട് ഞാൻ അങ്ങേ അറ്റം ശ്രമിക്കുന്നുണ്ട്